നൃത്തത്തെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെറ്റിധാരണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൃത്തം ചെയ്യുന്നോരെല്ലാവരും തന്നെ വളരെ സമ്പന്നരാണെന്നുള്ള ചിന്തയാണ് അതുപോലെത്തന്നെ ആ സമൂഹത്തിനിടയിലുള്ള ചിന്തയാണത് അതായത് നൃത്തം ചെയ്യുന്നവരെല്ലാവരും സമ്പന്നരായ ആ സമ്പന്നരാണ് എന്നുള്ളൊരു ചിന്തയും അവരുടെ കുട്ടികളെല്ലാം വളരെ ബാഡ് പാരൻ്റിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും അവർക്ക് വേണ്ട ഒരു സമയങ്ങൾ ഒന്നും ചെലവഴിക്കാറില്ല നൃത്തം ചെയ്യുന്നോര് എന്നൊക്കെയാണ് മിസ്കോൺസെപ്റ്റുകള് സൊസൈറ്റിയിലുള്ള മിസ്കോൺസെപ്റ്റുകളൊക്കെയാണ് ഇത് അതുപോലെതന്നെ അവർ വെറും എൻ്റർടൈൻമെൻ്റിനു വേണ്ടി മാത്രമാണ് ഡാൻസ് ചെയ്യുന്നതെന്നും പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല അവരുടെ പാഷൻ ആണ് നൃത്തം ചെയ്യുക എന്നുള്ളത് നൃത്തം ചെയ്യുന്നവരെ സംന്ധിച്ചിടത്തോളം അവരുടെ പാഷനാണ് അവരുടെ കഴിവാണ് അതുപോലെതന്നെ അവരുടെ ശരീരം നിയന്ത്രിച്ചു പോകാനുള്ളൊരു മാർഗ്ഗമാണ് പക്ഷെ സൊസൈറ്റി കാണുന്നത് വേറെ പല രീതിയിലാണ് അവരെ ഒരു അടിച്ചമർത്തപ്പെടുകയാണ് അവരുടെ വസ്ത്ര രീതികളെ അവര് കുറ്റം പറയും അതുപോലെതന്നെ എൻ്റർടൈനമെൻ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണവര് നൃത്തം ഉപയോഗിക്കുന്നത് എന്നുപറയും നല്ല പാരൻ്റിങ് കിഡ്സിന് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയും അതുപോലെത്തന്നെ അവര് നല്ല റിച്ച് ആണെന്നുള്ള മിസണ്ടർസ്റ്റാൻ്റിങ് ഒക്കെ തെറ്റിദ്ധാരണകളൊക്കെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്